തീർച്ചയായും ഞാൻ ഈ അടുത്തു വായിച്ചൊരു ബുക്ക് ആണ് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എം ടി എഴുതിയിട്ടുള്ള ബുക്കുകളിൽ വെച്ചിട്ട് നമ്മുടെ കേരളത്തിന് പുറത്തെ ഒരു കഥയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരേയൊരു പുസ്തകമാണ് മഞ്ഞ് എന്ന് പറയുന്നത് അത് മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ് മഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വിമല ടീച്ചർ ആണ് അവരൊരു ഊട്ടി ഊട്ടിയല്ല കേട്ടോ നൈനിറ്റാലാണ് കേട്ടോ നമ്മുടെ കഥയുടെ പശ്ചാത്തലം നൈനി നദിയുടെ അടുത്തുള്ള നൈനിറ്റാലാണ് നൈനിറ്റാളിൽ ഒരു ബോർഡിങ് സ്കൂളിലെ അധ്യാപികയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം ആയിട്ടുള്ള വിമല ടീച്ചർ അപ്പം വിമല ടീച്ചറുടെ കാഴ്ചപ്പാടിലൂടെയാണ് മഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള നോവൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വെക്കേഷൻ കാലം ആണ് ശരിക്കും പറഞ്ഞാൽ കഥയുടെ ആരംഭം ഓരോ വെക്കേഷനുകളിലും ഓരോ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു എന്നാൽ വിമല ടീച്ചർ മാത്രം അവരുടെ വീട് ശരിക്കും നൈനിറ്റാളിൽ തന്നെയാണ് അവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ വീട്ടിലെ സാഹചര്യയമെന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള മോശമായിട്ടുള്ളതല്ല സാമൂഹ്യപരമായിട്ട് അവരുടെ വീട്ടിലുള്ള ഒരു മോശം സ്ഥിതിയെ കുറിച്ചൊക്കെ നമുക്ക് പറയുന്നുണ്ട് അതുപോലെതന്നെ വിമല ടീച്ചർ ഒരു ഭയങ്കരാമായിട്ടുള്ള കാത്തിരിപ്പാണ് എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് തൻ്റെ അടുത്തേക്ക് തിരിച്ചെത്താത്ത തൻ്റെ പ്രണയിതാവിനെ കാത്തിരിക്കുന്നതാണ് വിമല ടീച്ചർ അയാളുടെ പേര് അരുൺകുമാർ മിശ്ര എന്നാണ് അയാൾ പോയിട്ടാണെങ്കിലും അയാളെക്കുറിച്ച് ഇവർ അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ അന്വേഷിച്ചെങ്കിൽ കൂടി അയാളെക്കുറിച്ച് വർഷങ്ങളായിട്ട് യാതൊരു വിവരവും ടീച്ചർക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്നെങ്കിലും ആ അദ്ദേഹം തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് വിമല ടീച്ചർ ജീവിക്കുന്നത് തന്നെ തന്നെയല്ല നമ്മൾ വേറെയും ഒന്ന് രണ്ട് കഥാപാത്രങ്ങളേ കൂടി ഈ കഥയിൽ പരിചയപ്പെടുന്നുണ്ട് അവരാണ് സർദാർജിയും പിന്നെ കോല എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കുട്ടിയാണ് അത് ഈ നൈനി ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു നൈനി നദിയുണ്ട് ആ നൈനി നദിയിൽ ബോട്ട് നടത്തു സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ബോട്ട് യാത്ര നടത്തുന്ന ഒരു ചെറിയ ഒരു കുട്ടിയാണ് കോല എന്ന് പറയുന്നത് ഈ കൊലയാണ് നൈനി ഈ വിമല ടീച്ചറെ പോൾ ഈ നദി കടന്നു പോവാനായിട്ട് സമ്മതിക്കുന്നത് സഹായിക്കുകായൊക്കെ ചെയ്യുന്നത് അപ്പം ടീച്ചർ സമയം കിട്ടുമ്പോഴൊക്കെ ഈ നൈനി നദിയിൽ കൂടി ബോട്ട് സവാരി നടത്താറുണ്ട് അതുപോലെ തന്നെയൊരു വേനൽകാലത്ത് അവിടെ സന്ദർശിക്കാൻ വരുന്നൊരു വ്യക്തിയാണ് സർദാർജി ആ സർദാർജിയും വിമല ടീച്ചറും തമ്മിൽ അവർ തമ്മിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടാവുകയും അവർ തമ്മിൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുകയും അങ്ങനെയൊക്കെ അവർ തമ്മിലുള്ളൊരു ചെറിയൊരു കോമ്പിനേഷൻ സീനുകളൊക്കെ അതിന്റെയകത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മെയിൻലി പറഞ്ഞാൽ മഞ്ഞെന്ന് പറഞ്ഞാൽ വിമല ടീച്ചറുടെ കാത്തിരിപ്പ് തന്നെയാണ് ഏറ്റവും നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള വരും വരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത് പക്ഷേ എന്നെങ്കിലും ടീച്ചറുടെ ആ കാത്തിരിപ്പ് സഫലമാവുമെന്നുതന്നെയാണ് നമ്മൾ ആ കഥയുടെ അവസാനം പ്രതീക്ഷിക്കുന്നത്